ഹലോ വയനാട് റസ്റ്റോറൻറ്റ് ആരാണ് വിളിക്കുന്നത് ആ ആ

ആ ആ ഇവിടെ ട്രഡീഷണൽ ഫുഡ് ആയിട്ട് പിടിയും കോഴിയും ഉണ്ട് അതുപോലെ ദാലും പത്തിരിയും ഈ മുസ്ലീംസിൻ്റെ ഒക്കെ ഒരു നോമ്പിന് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ദാലും പത്തിരി ഉണ്ട് അത് ഒരു ട്രഡി അത് ഇപ്പോൾ ഇല്ല ഇവിടെ കൂടുതലായിട്ട് പോകുന്ന ഒരു ഐറ്റാണ് ദാലും പത്തിരിയും പിന്നെ ഒരു കുഞ്ഞി പത്തിരി എന്ന് പറയും അതൊക്കെ ട്രഡീഷണൽ ഫുഡ് ആണ് പിന്നെ ഒരുപാട് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം ആവശ്യം ഉണ്ടെങ്കിൽ പിടിയും കോഴിയും എന്ന് പറയുമ്പോൾ നാന്നൂറ് ഇപ്പോൾ നാന്നൂറ് ഒരു അഞ്ഞൂറിൻ്റെ ഒരു ഇടയിൽ വരും

അല്ല അല്ല ബൾക്ക് ആയിട്ട് ഉള്ളതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ ഉണ്ടാകും

ആ ആ ആ

ആ അറേഞ്ച് ചെയ്യുന്നുണ്ട് ആ അവിടന്ന് ഇവിടന്ന് ചെയ്ത് തരാം ടാക്സി ടാക്സിലുള്ള ആൾക്കാർ അല്ലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വേറെ വലിയ വണ്ടി വേണോ ആ എന്നാ പിന്നെ ട്രാവലറെങ്ങാനും വേണോ ആ ആ ആ നിങ്ങൾ ഫങ്ക്ഷന് ആ റൂം ഒക്കെ അവൈലബിലാണ് അത് നിങ്ങൾ ഇവിടെ ഫങ്ക്ഷനോ അല്ലെങ്കിൽ വെറുതെ കാണാനോ ഫങ്ക്ഷന് വേണ്ടി വരുന്നതാണോ ആ ആ അപ്പോൾ ഫുഡ് ഒക്കെ ഇവിടുണ്ടാകും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും പിന്നെ റൂമും ഉണ്ടാകും ഓ ആ അപ്പോൾ റൂം ഒക്കെ ഇവിടെ ഉണ്ടാകും നിങ്ങൾ ഇപ്പോൾ ഡെയിലി മൂന്ന് നേരോം നാല് നേരോം എങ്ങനെ ആണ് ഫുഡ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഓഡർ ചെയ്ത് ഫുഡ് മൊത്തം അപ്പോൾ വൈകുന്നേരത്തെ ചായ അടക്കം മൂന്ന് ദിവസം ഉണ്ട് വേണം ആ ആ അപ്പം നിങ്ങൾ പറഞ്ഞ പിന്നെ റൂം ഒക്കെ വേണമല്ലേ ആ ആ റൂമ് മൂന്ന് ദിവസം ആയിരിക്കൂലേ ആ ആ ആ അപ്പോൾ റൂമ് ആ ഇപ്പോൾ ആ ഞാൻ ഒന്ന് നോക്കീട്ട് പറയാം ഓരോ പാക്കേജുകൾ ഉണ്ട് ആ ആ ഞാൻ നോക്കീട്ട് പറയാം വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങൾ ആ പിന്നെ മെനു ഒന്ന് അയച്ച് തരാം ഞാൻ ഫുഡിൻ്റെ മെനു ഏതൊക്കെയാന്ന് ട്രെഡിഷണൽ ഫുഡ് ഉണ്ട് വെസ്റ്റേൺ ഫുഡ് ഒക്കെ ഉണ്ട് ഞാൻ മെനു അയച്ച് തരാം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ നോക്കീട്ട് ചെയ്താൽ മതി ആ ആ ആ എന്നാൽ ഓക്കെ